ചെറുപ്പക്കാലത്ത് എനിക്ക് സൈക്കിള് ഓട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സൈക്കിൾ ഓട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ലായിരുന്നു അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഒരു ചെറുക്കൻ്റെ സൈക്കിള് വേടിച്ചിട്ട് എന്നും വൈകുന്നേരം ഓടിച്ച് പഠിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പം സൈക്കിള് നന്നായിട്ട് ഓട്ടാൻ പഠിച്ചു സൈക്കിൾ ഓട്ടാൻ പഠിച്ച് അങ്ങനെ പത്താം ക്ലാസ്സിലൊക്കെ എത്തിയപ്പം പത്താം ക്ലാസ്സിൽ ഒരു ദിവസം നാട്ടിൽ സൈക്കിൾ ഓട്ടം വരുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് നൽകാം എന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും അവിടെ ചെന്നിട്ട് ഒരു നോട്ടീസ് വാങ്ങിയിട്ട് ആ പറഞ്ഞ ചേട്ടന്മാരോട് എൻ്റെ പേരും കൂടെ കൊടുക്കാമോ എന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടന്മാർ പറഞ്ഞു അത് കുഞ്ഞ് കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയല്ല അതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എനിക്ക് എന്നാലും എനിക്ക് നന്നായി സൈക്കിൾ ഓടിക്കാൻ കഴിയും എന്ന് പറഞ്ഞു പക്ഷേ പതിനെട്ട് വയസ്സായി പ്രായപൂർത്തിയായവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കുവാൻ കഴിയുള്ളു എന്ന് പറഞ്ഞപ്പോൾ വളരെ സങ്കടമായി എന്നിരുന്നാലും ആ പതിനെട്ട് വയസ്സ് ആവുന്നത് വരെ ഞാൻ സൈക്കിളിൽ ബാലൻസ് ചെയ്യാനും നന്നായി പരിശീലിക്കുവാനും ഏത് രീതിയിലും സൈക്കിൾ ഓട്ടുവാനും ഞാൻ പഠിച്ചു അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോൾ വീണ്ടും ഇതേ മത്സരം ഞങ്ങളെ നാട്ടിൽ വരികയുണ്ടായി അങ്ങനെ ആ മത്സരത്തിൽ ഞാൻ പോയി പങ്കെടുത്തു ആ പങ്കെടുത്തതിൽ എനിക്ക് ഒന്നാമത് എത്തുവാൻ സാധിച്ചു ആ ആ അതെനിക്ക് ഭയ വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന് തന്നായിരുന്നു ഞാൻ പഠിച്ച ഒരു കാര്യം ആ മൂന്ന് വർഷം ഞാൻ ആ നാല് വർഷം ഞാൻ ആ സൈക്കിളിൽ എങ്ങനെയൊക്കെ പരിശീലിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പരിശീലിച്ച് സൈക്കിളിനെ ഓട്ടുവാനും തിരിക്കുവാനും ഏത് രീതിയിലും ഓടിക്കുവാനും ഞാൻ പഠിച്ചെടുത്ത് ഞാൻ ആ സൈക്കിള് ഓട്ടത്തിൽ ഒന്നാമതായി തീർന്നു പിന്നീട് കോളേജിൽ എത്തിയപ്പോൾ അവിടെ ബൈക്കിങ് ഉണ്ടായിരുന്നു ബൈക്കിങ്ങിന് പിന്നീടുള്ള അടുത്ത ശ്രമം ബൈക്കിങ്ങിൽ എങ്ങനെയാണ് എങ്ങനെ ബൈക്ക് പരിശീലിക്കാം എങ്ങനെ ബൈക്കിൽ നന്നായി ഓടിക്കാൻ ചെയ്യാൻ പറ്റും അങ്ങനെ ബൈക്കിങ് പരിശീലിച്ച് പരിശീലിച്ച് ബൈക്കിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ പഠിച്ചു മനസ്സിലാക്കി ഒരു ദിവസം കോളേജിലും ഇതുപോലെ വന്നപ്പോൾ ബൈക്കിങ്ങിന് ചേർന്നു അതിലും ഫസ്റ്റ് നേടുവാൻ സഹായിച്ചു ആ ഇഷ്ടം എന്നെ ഒരു വലിയൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു ആ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ബൈക്ക് ഓടിക്കുന്ന ചിത്രമാണ് എൻ്റെ മനസ്സിലോട്ട് കടന്ന് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതൊരു എൻ്റെ ഒരു സ്വപ്നമായി മാറി അത് പിന്നീട് ഞാൻ അതിന് വേണ്ടി പരിശ്രമിച്ചു ഓരോ ക്യാമ്പസിലും ഓരോ ടീമിലും ചെന്ന് ഞാൻ ബൈക്കിങ് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങാടികളിലും പോയി ബൈക്കിങ്ങ് റേസിങ്ങിൽ പങ്കെടുക്കുകയും അതിനോട് അനുബന്ധിച്ച് ഒരുപാട് സമ്മാനങ്ങളും ലഭിക്കാൻ ഇടയായി അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ് എന്നതിൽ ഉപരിയായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായത് കാരണം എനിക്കത് വളരെ ഇഷ്ടത്തോടെ ഞാനെന്നും ചെയ്തുവരുന്നു